ഇന്ത്യയുടെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് രാജ്യത്തെ എല്ലാ സ്റ്റേറ്റ്കളിലും അത് പല രീതിയിലാണ് നോർത്തേൺ റീജിയണിൽ അതെപ്പഴും തണുപ്പ്നോട് അനുബന്ധിച്ചുള്ള ക്ലൈമറ്റായിരിക്കും സൗത്തിൽ ആകുമ്പോൾ അത് ചൂടിനോട് അനുബന്ധിച്ചുള്ള ക്ലൈമറ്റായിരിക്കും